ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോള് എന്നെ ജോഗ്രഫി പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ടായിരുന്നു ജാനകി മിസ്സെന്ന് പറഞ്ഞ് അപ്പോള് ജാനകി മിസ്സിന് ടീച്ചേസ് ഡേ ആയപ്പോള് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു ടീച്ചറാണ് ജാനകി മിസ്സ് അപ്പോള് ഒരുപാട് പേര് ടീച്ചേയ്സ് ഡേയ്ക്ക് വിഷ് ചെയുന്ന കാർഡുകളും എല്ലാം സൂപ്പർ മാർക്കറ്റില്നിന്നും അവിടന്നും ഇവിടന്നൊക്കെ മേടിച്ചോണ്ട് വന്നു കൊടുത്തായിരുന്നു പക്ഷെ ഞാൻ അതിനു രണ്ട് ഒന്നും എല്ലാ വർഷവും കാണുന്നതാണ് മിസ്സിന് കുറെ കാർഡുകൾ കിട്ടുന്നത് അപ്പോള് വ്യത്യസ്തമായ എന്തേലും ചെയ്യണേനെ കുറിച്ച് ഞാൻ ആലോചിച്ചു കാരണം വളരെയധികം നല്ലൊരു ടീച്ചറായിരുന്നു പുള്ളി മിസ്സ് അപ്പോള് പിന്നെയാണ് അപ്പോഴാണ് ഒരു കാർഡ് സ്വന്തമായി എഴുത്തിയുണ്ടാക്കിയാലോ എന്നുള്ള ഐഡിയ എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ അതിന്റെ തലേ ദിവസം ടിച്ചേയ്സ് ഡേയുടെ തലേ ദിവസം ഇരുന്ന് ഒരു കാർഡ് മൊത്തം വരച്ച് മിസ്സനെ എന്നാൽ കഴിയുന്ന വിധം മിസ്സിന്റെ മുഖം അതില് വരയ്ക്കാൻ പറ്റുകയും കുറച്ച് ടീച്ചേയ്സ് ഡേ വിഷും ഒക്കെ എഴുതി ഒരു കാർഡുണ്ടാക്കനെന്നെ സാധിച്ചു ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോള് അത്ര മികച്ച ഒരു കാർഡൊന്നും ആയിരുന്നില്ല അത് എന്നാലും ഞാനെന്നെ എന്നാൽ കഴിയുന്ന വിധം എല്ലാ പരിശ്രമങ്ങളും നടത്തി അതിനെ എന്തോരം നന്നാക്കാൻ പറ്റ്വോ അത്രയും നന്നാക്കാന് അതിനുശേഷം അടുത്തവുസം എല്ലാവരും കാർഡ് കൊടുത്തു അപ്പോള് ഞാനും അതിൻ്റൊപ്പം അതും കൊടുത്തു അപ്പോള് എല്ലാവരും റെഡിമേഡ് മേടിച്ച് കൊടുത്തപ്പോള് എൻ്റെ ഞാൻ തന്നെയുണ്ടാക്കിയ കാർഡ് കണ്ടപ്പോള് മിസ്സിൻ്റെ മുഖത്തൊരു പ്രത്യേക തരം സന്തോഷം വന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോള് നമ്മള് തന്നെയുണ്ടാക്കി കൊടുക്കുന്ന കാർഡിനെ കുറിച്ച് പറയാണെങ്കിൽ നമ്മൾ ഒരാൾ നമ്മൾക്കൊരു എന്തെങ്കിലു തരുമ്പോള് അവര് അതിലേക്ക് അതിൻ്റെ വിലയല്ല അതിനേക്കാളും കൂടുതൽ അവര് അതിലേക്ക് എന്തോരം പരിശ്രമം നടത്തി അതായത് എന്തോരം കഷ്ടപ്പെട്ടാണ് അവരത് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതിൽ പ്രധാനം ഇപ്പോള് ഒരാളെനിക്കൊരു ഇത്ര പൈസയുടെ ഇത് മേടിച്ച് തന്നു പക്ഷെ വേറൊരാൾ എനിക്ക് ആൾ തന്നെ ഒരുപാട് പരിശ്രമിച്ചുണ്ടാക്കിയ ഒരു കാർഡാണ് തന്നതെങ്കിൽ ഞാൻ ആ കാർഡ് ആയിരിക്കും എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുക കാരണം എനിക്ക് വേണ്ടി ഒരാൾ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയല്ലോ എന്ന് ആലോചിക്കുമ്പോള് അതിൽ നമുക്കൊരു നന്ദിയും സന്തോഷവുമൊക്കെ കാണും